ഹലോ ഹലോ ചേട്ടാ ചേട്ടൻ മറ്റെ ആ സെറാമിക് പോട്ടൊക്കെയുണ്ടാക്കുന്ന ചേട്ടനല്ലേ ആ എൻ്റെ ചേട്ടാ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ ചേട്ടൻ്റെയടുത്ത് വന്ന് കുറച്ച് സാധനം മേടിച്ചായിരുന്നു ആ എൻ്റെ ചേട്ടാ എന്തൊരു എൻക്വൈറിയാണ് ആ സാധനം ഞാൻ കൊണ്ടുവന്ന് വെച്ച് നാല് ദിവസം കൊണ്ട് തീർന്നു എന്തൊരു എൻക്വൈറിയാണ് അതിന് വരുന്നതെന്നോ അപ്പോള് എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം ചേട്ടൻ എങ്ങനെയാണ് ചേട്ടാ ഈ ഇതിലേക്ക് ഇതെങ്ങനെയാണ് ചേട്ടാ സെറ്റപ്പ് ചെയ്തെടുത്തത് ആണല്ലേ അപ്പോള് ചേട്ടൻ്റെ റോള് ചേട്ടൻ എന്താണിപ്പോള് അതില് ചെയ്യുന്നത് ചേട്ടൻ്റെ റോളെന്താണ് അപ്പോള്

ഓ അപ്പോള് ഉണ്ടക്കുന്നത് വേറെയാൾക്കാരാണോ ചേട്ടനല്ലേ ഉണ്ടാക്കുന്നത് ഓക്കേ ഓ ചേട്ടനവർക്ക് പറഞ്ഞുകൊടുത്തിട്ട് അവര് ഉണ്ടാക്കുകയാണല്ലെ ചെയ്യുന്നത് ആ ഓക്കേ ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ കടയിലിതുവരെ ഇത്രയും ഡിമാൻഡിലൊരു സാധനം ഇങ്ങനെ പോയിട്ടില്ല ഒരു ഒരു കസ്റ്റമര് കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം വന്ന് മേടിച്ചിട്ട് പോയിട്ട് അവര് അവർക്കെന്തോ റിസോർട്ടാണ് അപ്പോള് അവര് പിന്നെയും വന്ന് അവർക്ക് പന്ത്രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു അപ്പോള് ഞാന് അതിൻറ്റെയെല്ലാം ഓഡര് പ്ലേസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ചേട്ടനെ ഇപ്പോള് വിളിച്ചത് ചേട്ടാ ഭയങ്കരം ഡിമാൻഡാണ് ചേട്ടാ ഞാൻ ഞാൻ ഏ ആ ഐറ്റം ഐറ്റം മറ്റെ ആ ഫൈബറും കൊണ്ട് ചേട്ടനൊരു സാധനം ഉണ്ടാക്കിയില്ലായിരുന്നുവോ മറ്റെ രൂപം പോലെ ആ അത് കുറച്ച് ശില്പങ്ങള് ഉണ്ടാക്കിയില്ലായിരുന്നുവോ ആ അതുതന്നെ അതുതന്നെ ആ ബുദ്ധൻ അതിൻ്റെയൊക്കെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഈ റിസോർട്ടിലോക്കെയാകുമ്പോള് അതൊക്കെ ഒത്തരി മേടിക്കുമല്ലോ അപ്പോള് അത് വിറ്റുപോയായിരുന്നു നല്ലവണ്ണം വിറ്റുപോയായിരുന്നു അത് പിന്നെയും അവര് വന്ന് ചോദിച്ചു പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ റിസോർട്ടിൽ നിന്ന് വന്ന് അവരും ചോദിച്ചു അപ്പോള് നമുക്ക് എറൌണ്ട് ഒരു നൂറ് നൂറ്റിരുപത് സാധനത്തിൻ്റെ ഓർഡര് ഇപ്പോള് ഞാൻ ചേട്ടന് തരാൻ പോകുകയാണ് ആ ഓക്കേ ആ അതൊന്ന് ഡീല് ചെയ്തു തരണം കേട്ടോ നമുക്ക് ചേട്ടന് വർക്ക് ശരിക്കും ചേട്ടൻറ്റെ ഇഷ്ടപ്പെട്ടു അപ്പോള് അതുകൊണ്ട് വിളിച്ചതാണ് പിന്നെ റേയ്റ്റും കുറവാണല്ലോ അപ്പോള് ചേട്ടൻ ഇതെങ്ങനെയാണ് ചേട്ടനായിട്ട് തുടങ്ങിയതാണോ അതോ നേരത്തെ പാരമ്പര്യമായിട്ടുള്ളതാണോ ആണോ അപ്പോള് ആരാണ് തുടങ്ങിയത് അച്ഛനോ അപ്പൂപ്പനോ ആണല്ലേ ആ ഓക്കേ ഓക്കേ ഓക്കേ അവര് തൊട്ട് നിങ്ങള് പിന്നെ ഓ അത്രയുമായല്ലേ അപ്പോള് നല്ല എക്സ്പീരിയൻസുള്ള ഫീൽഡാണ് ആ ഓക്കേ ചേട്ടാ ഓക്കേ അപ്പോള് ഇത് അപ്പോള് ചേട്ടൻ ചേട്ടൻ ചേട്ടൻ എത്ര വർക്കറുണ്ട് അവിടെ മൊത്തം എത്ര വർക്കേഴ്സുണ്ട് ഓ മുപ്പത്തിമൂന്ന് പേരുണ്ടല്ലേ ഞാനിത് അന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് വഴിയാണ് ഈ സാധനം എടുത്തത് അപ്പോള് അതുകൊണ്ട് എനിക്കങ്ങനെ ഡീറ്റെയിലൊന്നും അറിയാൻ പറ്റിയില്ല ഇനി തൊട്ട് ഞാൻ ഡയറക്ട് വന്നേ സാധനം എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാനിനി വന്നുകൊള്ളാം ആ അമ്പത്തിയാറ് വർഷമായല്ലെ അപ്പോള് നിങ്ങള്ക്ക് വലിയ പ്ലോട്ടാണോ ചേട്ടാ ഇങ്ങനെ ലൈക്ക് വലിയ സ്ഥലത്താണോ നിങ്ങള് ചെയ്യുന്നത് അതോ ചെറിയ ഏരിയയിലാണോ വലിയ ഏരിയയാണല്ലെ വേറെ ഓർഡേഴ്സ് ഒക്കെ പോകുന്നുണ്ടോ ചേട്ടാ ആണല്ലെ ഇത് എങ്ങനെയുണ്ട് ചേട്ടാ ഇൻകം ഒക്കെ എങ്ങനെയുണ്ട് ഇതില്നിന്ന് മിച്ചമാണല്ലേ ഇത് ഇത് ലൈക് മുടക്കുമുതല് ഒത്തരി വരുന്നുണ്ടോ മുടക്കുമുതല് ഒത്തിരിയുണ്ടോ കുറവാണല്ലേ ഓക്കേ ഓക്കേ ഒരഞ്ച് അഞ്ച് ലക്ഷം രൂപയൊക്കെ നമ്മള് മുടക്കിക്കഴിഞ്ഞാല് നമുക്കെത്ര ഇത് കിട്ടും ചേട്ടാ ഇൻകം ഏകദേശമൊരു പത്തൊക്കെ കിട്ടുമോ തിരിച്ച് പണിക്കാശെല്ലാം കഴിച്ച് ചേട്ടന് മിച്ചം പിടിക്കാൻ ഒരു പത്തിൻ്റെ മുകളില് കിട്ടുമല്ലേ ഓക്കേ ആ ഓക്കേ ചേട്ടാ ഓക്കേ ഓക്കേ ആണല്ലേ ആ ഓക്കേ ഓക്കേ ഞാനിങ്ങനെ എന്തെങ്കിലുമൊരു പരിപാടി തുടങ്ങിയാലോയെന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷേ നമുക്കതറിയില്ല എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ ആ സെറ്റ് ചെയ്യണം ആ ഞാൻ വരുന്നുണ്ട് ചേട്ടാ ഞാനീ സാധനം മേടിക്കാൻ വരുമ്പോള് ഞാനെന്തായാലും ഇത്രയും ദൂരെനിന്ന് വരികയല്ലെ അപ്പോള് വരുന്നുണ്ട് സാധനം മേടിക്കാൻ വരുമ്പോള് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാൻ ഇന്നിപ്പോള് എത്രയാണ് ഡേയ്റ്റ് ഇന്ന് എട്ടാം തീയതിയല്ലേ ഞാനൊരു പത്താം തീയതി അങ്ങ് വന്നേക്കാം പത്താം തീയതി രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോള് ഞാൻ അവിടെയുണ്ടാകും നിങ്ങളുടെ കറക്ട് സ്ഥലം എവിടെയായിരുന്നു ചേട്ടാ അടിമാലി ആ ആ ഓക്കേ ഓക്കേ എന്നാല് ആ ഓക്കേ ഓക്കേ ഞാനെന്നാല് കറക്ട് ടൈം ആകുമ്പോഴത്തേനും ഞാനെത്തിക്കോളാം ഹാ ആ ആ ആ എത്തുമ്പോള് വിളിക്കാം ആ ഞാൻ വിളിക്കാം ചേട്ടാ ഓക്കേ